ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണുറ്റി ഏഴ് പന്ത്രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പതിനാല് ആറ് രണ്ടായിരം പതിനാറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട്